ഹലോ ഇത് ബി എസ് എൻ എൽ ഓൺലൈൻ ലാൻഡ്ലൈൻ സർവീസല്ലേ ഓക്കെ അതെ എനിക്കൊരു ചെറിയൊരു ഹെൽപ്പ് വേണമായിരുന്നു അതിനു വേണ്ടിയിട്ടാണു വിളിച്ചത് അതെ അതെ ലാൻഡ്ലൈൻ എൻ്റെ ലാൻഡ് ലൈനില് ഇപ്പോള് അടുത്തൊരു ബിൽ പേയ്മെന്റ് പ്രോസസ്സ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതെ ഇനി അതെ അതെ ഇനി എനിക്ക് വരാനിരിക്കുന്ന ലാൻഡ്ലൈൻ ബില് അടയ്ക്കുന്നതിൻ്റെ ഒരു മെസ്സേജ് എനിക്കു ലഭിച്ചിട്ടുണ്ടായിരുന്നു അതു ഞാൻ അടച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ഡൗട്ട് എനിക്കുണ്ട് അപ്പോള് അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ അതെ അതെ ഓക്കെ ഈ ബില് ഞാൻ ബില് പേയ്മെൻറ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതു നിങ്ങളവിടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് എനിക്കു പറയാമോ അതെ കഴിഞ്ഞ മാസത്തെ അതെ ഇനി ആ അതു ചെയ്തിട്ടില്ല എങ്കില് അടുത്ത മാസത്തെ പേയ്മെന്റും ഒരുമിച്ചിട്ടാണോ എനിക്കു വരാൻ പോകുന്നത് അതൊന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്നറിയിക്കാമോ ശരി അതെ ബിൽ പേയ്മെന്റ് ഞാന് ചെയ്യാൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു സംശയം നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയുകണെങ്കില് അതൊരു കൺഫേം ആകുമായിരുന്നു അതെ അതെ ആ ഓക്കെ ചെയ്തിട്ടുണ്ടല്ലേ ഓക്കെ വളരെയധികം നന്ദി